ചിത്രം വരയ്ക്കുന്നവരോട് പറയാമെന്നു വച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നു വച്ചു കഴിഞ്ഞാൽ അവർ വരയ്ക്കാനറിയാത്തവരാണ് വരയ്ക്കാൻ പഠിക്കാൻ പോകാൻ പറയും ചിത്രം വര പഠിക്കാൻ പോകാൻ പറയും അതെപോലെ അവർ ദിവസവും വരച്ചു വരച്ച് ട്രൈ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരെ കഴിവ് പുറത്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതേപോലെതന്നെ എനിക്ക് ചിത്രം വരയ്ക്കുന്നത് ആഗ്രഹമാണ് ഞാൻ വരയ്ക്കാറുണ്ട് ഞാൻ പഠിച്ചിട്ടൊക്കെയുണ്ട് ചിത്രം വര അതേപോലെ ചിത്രം വര പഠിക്കാനുള്ള താല്പര്യം ഉള്ളവരെ ഞാനിടയ്ക്ക് പറഞ്ഞുകൊടുക്കും ഇങ്ങനെ ഉപദേശം ചെയ്യാറുണ്ട് ഈ ദിവസം ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കയ്യൊക്കെ നല്ലോണം വഴങ്ങും എന്നൊക്കെ പറയാറുണ്ട് അതേപോലെ ചിത്രം വരയ്ക്കുന്നത് അത്രയും നല്ല കാര്യമാണ് നമുക്കൊരു ജോലിയായിട്ടെടുക്കാം ചിത്രം വരക്കുന്നത് ഒരു ഹോബിയായിട്ടും എടുക്കാൻ പറ്റുന്നത് ഇതാണ് നമുക്ക് ബോറടിച്ചിരിക്കുമ്പോഴൊക്കെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലതെന്നു വച്ചാൽ ചിത്രം വരയ്ക്കാൻ പഠിക്കാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നയായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അതെപോലതന്നെ ചിത്രം വരയ്ക്കാൻ പോവുകയാണെങ്കിൽ അത്രയും നല്ലത് പഠിക്കാൻ പോവുകയാണെങ്കിൽ അത്രയും നല്ലത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്